ഗുഡ് മോർണിങ്ങ് സാർ ഇത് ഞാന് തോട്ടയ്ക്കാട്ന്നാണെ വിളിക്കുന്നത് ഞാനൊരാഴ്ച്ച മുമ്പ് ഫ്ലിപ്പ്കാർട്ടില് നമ്മുടെ ഓൺലൈനായിട്ട് സ്മാർട്ട് ഫോൺ ഞാനോഡര് ചെയ്തിരുന്നു പക്ഷേ അത് ഇതുവരെ ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല എനിക്ക് അന്നു തന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏഴാം തീയതിഎത്തും എന്നുള്ള ഒരു രീതിയിലായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തുമെന്നുള്ള രീതി പക്ഷേ ഇപ്പോൾ ഞാനോഡര് ചെയ്തിട്ടന്നെ ആറ് ദിവസത്തോളമായി അതിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി ഞാൻ നടത്തിയതാണ് കാർഡ് വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തിയത് അപ്പോള് അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഐ ഫോണാണ് ഒരു ലക്ഷത്തിലധികം വിലയുള്ള ഫോണാണ് അത് എ എനിക്ക് ലഭിക്കുമോ അതിൻ്റെ ഡീറ്റെയിൽസെനിക്കറിയണം പിന്നെ അതിൻ്റെ എല്ലാം നിങ്ങള് ഷിപ്പിങ്ങ് നടത്തിയോ അതിനെക്കുറിച്ചെനിക്കറിയണം അല്ലെങ്കില് എൻ്റെ പൈസ വെറുതെ വേസ്റ്റായി പോകുവാണോ ചെയ്യുന്നത് എനിക്കോർക്കുമ്പോള്ത്തന്നെ വിഷമമുണ്ട് അപ്പോള് അതിൻ്റെ അവസ്ഥയെക്കുറിച്ചന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വിളിക്കുന്നത് അതിനെക്കുറിച്ച് സാര് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊന്ന് വിളിച്ച് അന്വേഷിക്കുവാണേല് വളരെ ഉപകാരമായിരുന്നു അത് സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കില് അവിടെ ആരാണ് ഇത് ഇത് കൈകാര്യം ചെയ്യുന്നേന്ന് പറഞ്ഞാല് ആ വ്യക്തിയുടെ നമ്പറെനിക്ക് തന്നാല് മതി എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും അത്യാവശ്യം അറിയാം അപ്പോള് മിക്കവാറും അതിൻ്റെ ഇത് ചെയ്യുന്ന ഓർഡര് പാക്ക് ചെയ്യുന്ന ബോയ്സോ ഹിന്ദിക്കാരായിരിക്കുമല്ലോ ഞാൻ അതനുസരിച്ചു അവരോട് സംസാരിച്ചോളാം അല്ലെങ്കില് ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ എൻ്റെ പൈസ എൻ്റെ ഫോൺ എൻ്റെ ബാങ്ക് അ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാകാൻ ആകുവോ ഞാനിങ്ങനെ ടെൻഷനടിച്ച് എൻ്റെ പൈസയും പോയി ഫോണുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ കടന്നുവരേണ്ടിവരുമോ എനിക്ക് ഇതിനെങ്ങനേങ്കിലും റീപ്ലേ ചെയ്യണം അല്ലങ്കിൽ എനിക്കെൻ്റെ ഞാൻ തന്ന ഓഡര് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങള് തരുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങളെനിക്ക് തരണം അല്ലെങ്കില് ഞാനെന്ത് ചെയ്യും ഞാന് എൻ്റെ ഒരു കാര് വാങ്ങിക്കാൻ വേണ്ടി വച്ചിരുന്ന പൈസയായിരുന്നു അതിപ്പോള് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാന് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അതിങ്ങനെ ഓൺലൈനായിട്ട് ത തട്ടിപ്പുകളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ എനിക്ക് സംഭവിക്കൂമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനത് വരുമെന്നാണ് ഇപ്പോഴും ഞാന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ ഞാൻ വിശ്വാസമർപ്പിക്കുകയാണ് അത് ഉടനെ തന്നെ എൻ്റെ വീട്ടില് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനാവശ്യപ്പെടുകയാണേ അല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് അതിൻ്റെ ഇപ്പോള് മഴ കാരണമാണോ അതിൻ്റെ ഡിലെ വരുന്നേന്നുള്ള ഡീറ്റെയിൽസ് എന്നോടൊന്ന് പറയാമോ ട്രാവലിങ്ങിൻ്റെ അസൗകര്യം കാരണമോ അങ്ങനെ എന്തേലും ആണെങ്കില് എന്നെയൊന്ന് അറിയിച്ചാല് മതി എൻ്റെ ടെൻഷനത്രയും കുറയുമല്ലോ അപ്പോള് എന്നെ സഹായിക്കണം കേട്ടോ ഞാൻ ഈ ഒരാഴ്ച ഇനി ഇവിടെ കാണത്തില്ല വന്നാല്ത്തന്നെ എൻ്റെ റിലേറ്റീവ്സാരെങ്കിലും അത് കൈകാര്യം ചെയ്തോളും വാങ്ങിച്ചോളും അപ്പോള് എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് അതിൻ്റെ അവസ്ഥയെക്കുറിച്ചന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങള് എനിക്ക് ഉടനടി എനിക്കൊന്ന് വെളുപ്പെടുത്തിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് താങ്ക് യൂ സാർ